ആ ഓക്കെ പറഞ്ഞോളൂ തിളങ്ങി ക്ലൈമറ്റ് കണ്ടീഷൻ ഇപ്പം നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല പിന്നെ മഴ ഉണ്ട് വേറെ ഓൾമോസ്റ്റ് നമുക്ക് ഇപ്പം ട്രെക്കിംഗിനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ കുറേ അവൈലബിൾ ആണ് ആ നിങ്ങൾക്ക് ഇപ്പോൾ കുറുമ്പാലക്കോട്ട ഉണ്ട് പിന്നെ കാരാപ്പുഴ ഡാം ബാണാസുര സാഗർ പിന്നെ നമ്മക്ക് ഒരു പക്ഷി പാതാളം ഉണ്ട് പിന്നെ കുറുവ ദ്വീപും അവൈലബിൾ ആണ് നമുക്ക് പകുതി ദൂരം നിൽക്ക് ചിലപ്പം വണ്ടിയിലേക്കും പോവാം കുറച്ചേ നടക്കാൻ ഉണ്ടാവുള്ളൂ പിന്നെ വണ്ടി നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുകയും വേണ്ടേ കയറണമെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുമ്പം ചെറിയ പൈസയേ വരുള്ളൂ അതായത് ഒരു ഹൺഡ്രഡ് റുപ്പീസിനുള്ളിലൊക്കെയേ വരുള്ളൂ എല്ലായിടത്തും എൻട്രി ഫീ അത്രയേ വരുന്നുള്ളൂ ആ ഒരാൾ ആ ആ ഓക്കെ നമുക്ക് ഇപ്പം എന്തെങ്കിലും ചെയ്ത് തരാൻ ആണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ക്യാഷിൽ നിന്ന് കുറച്ച് തരാം വെഹിക്കിൾ ഫീ നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തുതരാം നമുക്ക് റിസോർട്ട് അറേഞ്ച് ചെയ്യാം അതും പ്രശ്നം ഒന്നും ഇല്ല നമുക്ക് റിസോർട്ട് അവൈലബിൾ ആണ് ഫുഡിൻ്റെ കാര്യം വേണമെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്തുതരുന്നത് ആയിരിക്കും ഫുഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യം ഉണ്ടോ നോക്കണം അല്ലേ ഇറ്റ്സ് ഓക്കെ നമ്മൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തോളാം അതാണല്ലേ ഓ വൈ നോട്ട് അത് നമുക്ക് പറ്റും ഓക്കെ ഓക്കെ എവിടെ എങ്ങനെയാണ് ഓക്കെ ഓക്കെ കൽപ്പറ്റയിൽ നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്തോളാം അപ്പം എപ്പം എത്ര മണിക്കാണ് നിങ്ങൾ എത്തുക എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ രാവിലെയാണോ ഓക്കെ ഇറ്റ്സ് ഓക്കെ നമുക്ക് അത് ചെയ്യാൻ പറ്റും കാരണം എട്ട് മണി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടി അങ്ങോട്ട് പറഞ്ഞുവിടാം എത്ര പേരാണ് പത്ത് പേരല്ലേ പറഞ്ഞത് അഞ്ചേ വരുന്നുള്ളോ ഓക്കെ ഇറ്റ്സ് ഓക്കെ നമ്മൾ അറേഞ്ച് ചെയ്തോളാം വണ്ടി ഓക്കെ ഓക്കെ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ ഓക്കെ ശരി അപ്പം ചെയ്തുതരാം കേട്ടോ